ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ എനിക്കേറ്റവും കൂടുതല് ഷോക്കേസ് ചെയ്യാൻ താൽപ്പര്യമുള്ള ആർട്ട് ഫോം എന്നു പറഞ്ഞാൽ കേരള മ്യൂറൽ പെയിൻ്റിംഗാണ് ഇത് പണ്ടു കാലത്തെ പണ്ടു കാലത്തെ പ്രവലൻസ് ഉള്ളൊരു നല്ലൊരാട്ട് ഫോമായിരുന്നു അതിനകത്ത് കാണിക്കുന്നതെന്നു വെച്ചാൽ പണ്ടത്തെ പണ്ടത്തെ ചർച്ചുകളിലും അതേപോലെ അമ്പലങ്ങളും ഇവിടെയെല്ലാം തന്നെ ഈ മതിലിലും സീലിംഗിലും എല്ലാം തന്നെ വരച്ചല്ലെ പെയിൻ്റു ചെയ്ത് ബോൾഡായിട്ടു ലൈൻസിൽ വരയ്ക്കുന്നത് ഒരു വരയ്ക്കുന്നൊരു ആട്ട് ഫോമാണ് മ്യൂറല് പെയ്ന്റിംഗ് ഇതിനകത്ത് മെയിനായിട്ടെന്നു ഇത് പണ്ടു പണ്ടേ പണിഞ്ഞിരിക്കുന്ന പള്ളികൾ എന്നു വെച്ചാൽ എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിൽ ആ സമയത്തൊക്കെ പണിതിരുന്ന ബ്രിട്ടീഷ്കാരുടെ കാലത്തുതന്നെ പണിഞ്ഞിരുന്നപ്പോഴേ കുറേ പള്ളികളിൽ അല്ലെങ്കിൽ അതുപോലത്തെ ആ ടൈമിലൊക്കെ പണിഞ്ഞിരിക്കുന്ന അമ്പലങ്ങളും അവിടെ അതിനകത്തൊക്കെ തന്നെ എല്ലാത്തിലും ഈ മ്യൂറൽ പെയ്ൻ്റിംഗുണ്ട് ഇത് ഇത് ഷോക്കേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ റിലീജിയന് നമ്മുടെ സ്പിരിച്വാലിറ്റിയിനെ ബേസ് ചെയ്തുള്ള ഡ്രോയിംഗ്സാണിത് അതു കൂടാത തന്നെ പള്ളിയിൽ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലും കാണാവുന്ന ഓരോരോ ഏരിയകളിലും കാണാവുന്ന ഒരു പെയ്ൻ്റിംഗ് പെയ്ൻ്റിംഗ് സ്റ്റൈലാണ് കേരള മ്യൂറല് പെയ്ൻ്റിംഗ് ഇതിനകത്ത് ഇത് നമ്മുടെ നമ്മുടെ കൾച്ചറലി നമ്മുടെ ഇപ്പോൾ ഹിസ്റ്ററിയിനേയും അതിനെ കുറിച്ചെല്ലാം തന്നെ നല്ല ഡീറ്റെയിലായിട്ട് നല്ല വൈബ്രൻ്റായിട്ട് വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ആട്ട് സ്റ്റൈലാണ് മ്യൂറല് പെയ്ൻ്റിംഗ് അതിനകത്ത് അതിൻ്റെ ലെവൽ ഓഫ് ഡി അതിനകത്ത് അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ക്യൂറസിയും വെച്ചതിനോരോ വര ഓരോ ലൈൻസും എല്ലാം തന്നെ നല്ല ബ്യൂട്ടി പിന്നെ നല്ല കാണാൻ നല്ല രസമുള്ള ഒരു ആട്ട് ഫോമാണത്